ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ കൂടുതലായിട്ടും നമ്മൾ കണ്ടുവരുന്നത് മുസ്ലിംസിനെ തന്നെയാണ് അപ്പോൾ മുസ്ലിംസ് എന്ന് ഒക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ അവർ ഈ ആചാരങ്ങളിലും കാര്യങ്ങളിലൊക്കെ നല്ല രീതിക്കു തന്നെ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു വിഭാഗത്തിൽ പെട്ടവരാണ് അപ്പം അവരെ സംബന്ധിച്ചെടുത്തോളം നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ സ്ത്രീകൾക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഉടനെ അവർ എന്താ പറയുക കല്യാണം കഴിച്ച് അയക്കുകയാണ് സാധാരണ ചെയ്യുന്നത് പിന്നെ അധികം പഠിക്കാനുള്ള അവസരങ്ങളൊന്നും അവർക്ക് കൂടുതലായിട്ട് നമ്മൾ മുസ്ലിംസ് കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല പിന്നെ ഇപ്പോൾ സ്ത്രീകൾ ഇപ്പോൾ എവിടെയെങ്കിലും ഒക്കെ വർക്കിന് ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അപ്പോൾ എന്താ പറയുക സാലറിയിലൊക്കെ ഭയങ്കര വ്യത്യാസം ആയിരിക്കും കാരണം ആണുങ്ങൾക്ക് ലഭിക്കുന്ന അത്ര സാലറിയും കാര്യങ്ങളൊന്നും പെണ്ണുങ്ങൾക്ക് ലഭിക്കുന്നില്ല അത് ഭയങ്കര ഒരു മോശമായ കാര്യമാണ് കാരണം പണിയെടുക്കുന്ന രണ്ട് പേരും ഒരേ രീതിയിൽ തന്നെ ആയത് കൊണ്ട് രണ്ടു പേർക്കും ഒരുപോലെ തന്നെ സാലറിയും കാര്യങ്ങളും ഒക്കെ കൊടുക്കണം എന്നതാണ് നല്ലത് എന്നതാണ് എൻ്റെ ഒരു ഇത് പിന്നെ എന്താ പറയുക അങ്ങനെ വേറിട്ട് കാണുന്നത് മോശമാണ് പിന്നെ എന്താ പറയുക സ്ത്രീകൾക്കും കൂടുതൽ എന്താ പറയുക ആണുങ്ങൾ മാത്രം ചീ ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ ഡ്രൈവിംഗ് ഒക്കെ ആദ്യം ആണുങ്ങൾ മാത്രം ചെയ്തു കൊണ്ട് ഇരുന്ന ഒരു കാര്യമാണ് ഇപ്പം സ്ത്രീകളും അതിലേക്ക് എത്തി അപ്പോൾ എല്ലാ കാര്യത്തിലും ഇതുപോലെ മുൻപോട്ട് സ്ത്രീകളും വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം